അയ്യോ അത് അങ്ങനെ പറയരുത് പ്ളീസ് ഞങ്ങളിവിടെ പകുതി ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്

അതു കുഴപ്പമില്ല സർവീസ് ചാർജ് ഞങ്ങള് തരും നിങ്ങൾക്ക് ഇപ്പം സർവീസ് ചാർജ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലലോ ഞങ്ങൾ ഇവിടെ മെഴുകുതിരി വെട്ടത്താണ് ഇരിക്കുന്നത് അപ്പം എപ്പം വേണമെങ്കിലും മെഴുകുതിരി തീരാനും സാധ്യത ഞങ്ങൾ സ്ത്രീകൾ തന്നെയുള്ളു ഇപ്പം ഇവിടെ മഴ മഴ മഴയാണെന്നൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് പ്ളീസ് ഞങ്ങളുടെ ഫുഡ് ഹാഫ് മാ ഹാഫ് കൂക്ഡ് ആയിട്ടേ ഉള്ളു നിങ്ങളങ്ങനെ പറയരുത് സ്ഥലം ഇവിടെ മറ്റേ ചെത്തി അത്യാലയിലോട്ട് പോകുന്ന വഴി അവിടെ തന്നെ അവിടെ തന്നെ അതു തന്നെ അതു തന്നെ ആടെ മോളാണ് അതെ അതെ പിന്നെ നിങ്ങളൊന്ന് വേഗം വരുവാണെന്ന് വളരെ ഉപകാരമായിരുന്നു ഞങ്ങള് തനിയെ ഉള്ളു ഇരുട്ടാണ് പേടിയുമാണ് ഭയങ്കര കാറ്റും മഴയുമാണ് ഞങ്ങൾക്കുമറിയാം നിങ്ങൾക്ക് തിരക്കുണ്ടെന്നൊക്കെ ഞങ്ങൾക്കും അറിയാം നിങ്ങളങ്ങനെ പറയരുത് പ്ളീസ് ഒന്ന് വേഗം വരുവായിരുന്നേൽ വളരെ ഉപകാരമായിരുന്നു അതെ അതെ കുഴപ്പമില്ല കുഴപ്പമില്ല ഒത്തിരിയെങ്ങാനും താമസിക്കരുത് വര വരാൻ കഴിയുന്ന അത്രത്തോളം വേഗം വരുവല്ലോ അത് ഹാഫ് കൂക്ഡ് ആയിട്ടുള്ള ഫുഡ് അന്നേ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം അതെ അതെ ഇൻജെക്ഷൻ അതെ മെഴുകുതിരികത്തിച്ച മെഴുകുതിരിയൊന്നുമില്ല എമർജൻസിക്കാണെലും ചാർജില്ല ഫോണൊന്നും ചാർജില്ല ഇന്നലേയും ഒന്നും കരണ്ട് ഒന്നും ഇല്ലായിരുന്നല്ലോ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ ഇവിടെ മാത്രമെ ഇപ്പം ഫ്യൂസ് കട്ട് ആയിട്ടുള്ളു എന്ന് തോന്നുന്നുള്ളൂ അടുത്ത വീട്ടിലൊക്ക കരണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ഓക്കേ താങ്ക്യൂ